തീർച്ചയായും ഓരോ കാലം മാറുന്തോറും സാങ്കേതിക വിദ്യകൾക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ സംഭവിച്ച് കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും സാങ്കേതിക വിദ്യയ്ക്ക് അതിന്റേതായ ഒരു സ്ഥാനമുണ്ട് നമ്മൾ കൃഷി എടുക്കുകയാണെങ്കിൽ കൃഷിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പണ്ടെല്ലാം നമ്മൾ ആളുകളെ വെച്ച് ചെയ്യുന്ന കൃഷി രീതിയിൽ നിന്ന് ഇപ്പോൾ യന്ത്രങ്ങളാണ് ചെയ്യുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് എന്താ പറയുക ആ ഒരു കൃഷിയുടെ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ കൃഷിയുടെ ആ ഒരു കുറച്ചും കൂടി സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാങ്കേതിക വിദ്യകൾ കൊണ്ട് സാധിക്കുന്നുണ്ട് മത്സ്യബന്ധനം ആയിക്കോട്ടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തെക്കുറിച്ച് നമ്മള് കൂടുതൽ ആ കാര്യങ്ങൾ അറിയാൻ നമുക്ക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാം ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അന്ന് ആ കടലിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്ങ്ങൾ തിരമാല കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് നേരത്തേ അറിയാനുള്ള മുൻകൂട്ടി അറിയാനുള്ള സാഹചര്യം സാങ്കേതിക വിദ്യകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് കൂടാതെ മൃഗ പരിപാലനം ഒരോ മൃഗങ്ങളെയും പരിപാലിക്കാൻ ഒരോ രീതികളാണ് ഉള്ളത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണന്നില്ല അപ്പോൾ മൃഗം പരിപാലിക്കാൻ കുറച്ചും കൂടി നമുക്ക് എളുപ്പമാകാൻ നമുക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫോൺ

ഇന്ന് സുലഭമായി ലഭിക്കാറുണ്ട് ഓരോ ആൾക്കാരും ഓരോ അവർ എങ്ങനെയാണ് അവരുടെ മൃഗങ്ങളെ പരിപാലിക്കുന്നത് നമുക്ക് യൂട്യൂബും മറ്റു കാര്യങ്ങളും നമ്മള് അറിയണ സമയത്ത് നമ്മളും അത് നമ്മളുടെ മൃഗങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി നമ്മൾ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയാൻ ഈ ഒരു സാങ്കേതിക വിദ്യകൾ നമ്മളെ തീർച്ചയായും സഹായിക്കുന്നുണ്ട് അതുപോലെ ക്ഷീര ഉല്പാദനം ഇതുപോലെത്തന്നെയാണ് ഒരുപാട് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയാൻ അല്ലെങ്കിൽ ഓരോ കർഷകർ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന രീതി അവർ ചെയ്യുന്ന ആ ഒരു രീതി എങ്ങനെയാണ് മറ്റുള്ളവരോട് പറഞ്ഞു തരുന്നു അങ്ങനെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം മറിച്ചിട്ടുണ്ട് കാലങ്ങൾ മാറുന്തോറും സാങ്കേതിക വിദ്യയിലുണ്ടാവുന്ന മനുഷ്യരുടെ സ്വാധീനം കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ തീർച്ചയായും എല്ലാ മേഖലകളിലും സംഭവിച്ചിട്ടുണ്ട്